നമ്മളൊരു വിസ എടുക്കാനുള്ള നമ്മൾ എയര്ലൈൻസിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കണം അതിന്റെ ടിക്കറ്റിന്റെ ചാര്ജ് പരിശോധിക്കുകയും അപ്പം ആ പോവേണ്ട രാജ്യത്തെക്കുറിച്ചൊരു വ്യക്തത വരുത്തുകയും നമ്മളെ എന്താവശ്യത്തിനാണോ പോവേണ്ടത് ആ കാര്യങ്ങളെ പറ്റിയൊരു വ്യക്തത വരുത്തുകയും ആ വ്യക്തത വരുത്തിക്കഴിഞ്ഞാല് പോകാനുള്ള കാര്യങ്ങൾ വിസ അടിച്ചു കഴിയുമ്പം നമുക്ക് പോവാന് പറ്റും പാസ്പേട്ട് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾക്ക് കടക്കണം ആ കാര്യങ്ങളൊക്കെ ചെയ്തുകഴിയുമ്പോള് നമുക്ക് പെട്ടന്ന് അതിലേക്ക് വരാനായിട്ട് പറ്റും